ഈ അടുത്ത് നമ്മുടെ കാസർഗോടിൽ ബേക്കലിൽ ഒരു ബേക്കൽ ഫെസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ഈ പുതിയ ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു എൻജോയ്മെന്റിനു വേണ്ടിയിട്ട് ഒരു ബേക്കൽ ഫെസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ പല സ്ഥലത്തു നിന്നും വരുന്ന ആൾക്കാരെ ഒന്ന് മെയിനായിട്ട് ടൂറിസം പിന്നെ എത്തിച്ച് ടൂറിസത്തിന് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു അപ്പം അവിടെ ചിത്രാമ്മ വന്ന് ചിത്രാമേൻ്റെ ഒരു സംഗീത നിശയുണ്ടായിരുന്നു അപ്പം അത് കേൾക്കാൻ വേണ്ടി ഞാനും പോയിട്ടുണ്ടായിരുന്നു അന്ന് ചിത്രാമ്മയുടെ പാട്ട് കേട്ട് എൻ്റെ അനുഭവം അത് വിവരിക്കാൻ പറ്റാത്തത് തന്നെയാണ് എന്താ ഒരു വോയിസ് എന്താ പാട്ടിൻ്റെ സ്വീറ്റ്നെസ് അങ്ങനെ വളരെ വളരെ ആസ്വദിക്കുകയും വളരെ പിന്നെ എൻജോയ് ചെയ്ത് കേൾക്കുകയും ചെയ്ത ഒരു സംഗീത നിശ ആയിരുന്നു അത് എനിക്ക് ചിത്രാമ്മയുടെ പാട്ട് നേരിട്ടായാലും അല്ലാണ്ടായാലും റേഡിയോയിൽ ആയാലും ടി വിയിലായാലും എവിടെ കാ കേൾക്കുന്നതും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരിയാണ് ചിത്രാമ്മ ഇപ്പം തന്നെ ഐഡിയ സ്റ്റാർ സിംഗറിൽ അവർ ജഡ്ജായിട്ട് വരുന്നത് ജഡ്ജ് ആയിട്ട് എല്ലാം പിന്നെ പ്രത്യേകിച്ച് ഞാൻ ആ പ്രോഗ്രാം കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളുടെ പാട്ടായാലും ചിത്രാമ്മ പിന്നെ അവരുട വിധു അതുപോല സിത്താര അവരുടെയൊക്കെ ജഡ്ജ്മെന്റും അവർ ഗുരുകുലം ടീമും ഓരോ കോൺവെൻറ് ടീമിൻ്റെയും മത്സരം അതൊക്കെ കാണാനും കേൾക്കാനും നല്ല രസമാണ് അപ്പോൾ അത് ഞാൻ മിസ്സ് ചെയ്യാതെ കാണുന്ന കൂട്ടത്തിലാണ് ഇനിയിപ്പം ലൈവില് ലൈവ് പെർഫോമൻസ് വേറൊരു ആരു വേറെ പാട്ടുകാരൻ്റെ ആര് ഏതെങ്കിലും കേൾക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ യേശുദാസ് സാറിൻ്റെ ഒരു പാട്ട് ലൈവായിട്ട് കേൾക്കുക കിട്ടിയാൽ കൊള്ളാം എന്നുള്ളത് തന്നെയാണ് പക്ഷേ അത് നടക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല യേശുദാസ് സാർ ഇനിയിപ്പം ഇവിടെ വന്ന് ഈ കാസർഗോഡ് വന്ന് പാടുക എപ്പം പാടും പാടാൻ പറ്റുമോ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഒന്നുമറിയില്ല എങ്കിലും കിട്ടുകയാണെങ്കിൽ കാണാൻ പറ്റുകയാണെങ്കിൽ കേൾക്കാൻ പറ്റുകയാണെങ്കിൽ യേശുദാസ് സാറിൻ്റെ ഒരു പാട്ട് ലൈവ് ആയിട്ട് കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് പിന്നെ അത് പാട്ടായതുകൊണ്ട് ഇനിയിപ്പോൾ ആരുടെ തന്നെയായാലും ലൈവായിട്ട് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ആ അവസരം മുതലാക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം അങ്ങനെ ഒരു പാട്ട് ലൈവായിട്ട് നമ്മുടെ നല്ല നല്ല കഴിവുള്ള പാട്ടുകാരായ പാടുന്നത് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിമിഷമായിട്ട് തന്നെ കാണാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ലൈവായിട്ട് ഒരു പെർഫോമൻസ് നമ്മുടെ ആരുടെ തന്നെയായാലും എം ജി ജയചന്ദ്രൻ സാറിൻ്റെ ആയാലും കേൾക്കാൻ എനിക്ക് താല്പര്യം തന്നെയാണ് പിന്നെ നമ്മുടെ സുജാത ചേച്ചി അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നല്ല നല്ല പാട്ടുകാർ നമുക്കു വേണ്ടിയിട്ട് നമ്മുടെ മലയാളം എന്നു പറഞ്ഞാൽ മലയാള സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം ഒരുപാട് പാട്ടുകാരുള്ള ഒരുപാട് നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ച ഒരുപാട് പിന്നെ സംഗീത സംവിധായകന്മാരെ ലിറിക്സ് എഴുതിയിട്ടുള്ള നമ്മുടെ പല പല നല്ല കഴിവുള്ള അൾക്കാർ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട് നമ്മുടെ സിനിമ മലയാള സിനിമ ലോകം തന്നെ ഒരു ഭാഗ്യം നിറഞ്ഞ ഒരു മിഡി മീഡിയമാണ് അപ്പം പല ആൾക്കാരും പല ഇപ്പം നമ്മൾ ചെറിയ ചെറിയ പാട്ടുകാർ ആയാലും അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിട്ട് നമ്മുടെ സിനിമാ ലോകത്ത് എത്തിപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം പാട്ട് എന്നു പറഞ്ഞാൽ തന്നെ ഒരു നല്ല ഒരു മീഡിയാണ് ഫേമസാവാൻ ആയാലും ഏത് രീതിയിൽ ആയാലും പാട്ട് വളരെ നല്ല ഒരു മീഡിയ തന്നെ ആണ്